നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കൂടുതലും നമ്മുടെ വീടുകളിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ചോറും പച്ചക്കറികളും അതുപോലെ തന്നെ ഇറച്ചി മീന് ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ കൂടെ തന്നെ കപ്പ കപ്പയൊരു മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് കപ്പയും മീൻ കറി അതുപോലെ തന്നെ ഇപ്പം മീൻ കറി ഇല്ലെന്നിരിക്കട്ടെ നമുക്ക് കപ്പയുടെ കൂട്ടത്തിൽ കാന്താരി മുളക് പൊട്ടിച്ചത് നമുക്ക് കഴിക്കാം നല്ല സൂപ്പറ് ടേയ്സ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് ചേന ചേമ്പ് കാച്ചിൽ ഇവയൊക്കെയാന്ന് പറഞ്ഞാലും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ചക്ക ചക്ക പ്ലാവിൽ നിന്ന് കിട്ടുന്ന ചക്ക ചക്കയുടെ സീസൺലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചക്ക അടിപൊളിയായിട്ട് നമുക്ക് എന്ത് അതായത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും നമുക്ക് കപ്പ ഒരു സൈഡായിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് മീൻ കറി ഇറച്ചി കറി കോഴി കറി അതുപോലെ തന്നെ നമ്മുടെ കാന്താരിമുളക് പൊട്ടിച്ചത് മുളക് ചമ്മന്തി ഇതിൻ്റെയൊക്ക കൂടെയും ഇല്ലെങ്കിൽ ഏതെങ്കിലൊരു അച്ചാറിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാലും നമുക്ക് കപ്പയൊക്കെ നമുക്ക് കഴ് കപ്പയും ചക്കയും നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല പ്രിയപ്പെട്ടൊരു ഭക്ഷണം ആണ് ഇത്രയും ഈ കപ്പയും മീനും ചക്കയും ചേനയും ചേമ്പും കാച്ചിലും ഇവയൊക്കെ അതുപോലെ തന്നെ നമ്മുടെ മസാലകൾ കറിക്കകത്ത് ഉപയോഗിക്കുന്ന മസാലകളെന്ന് പറയുമ്പം നമ്മൾ കൂടുതലായിട്ടും ഇറച്ചി മസാല അതുപോലെ തന്നെ മിറ്റും മീറ്റ് മസാല അതുപോലെ തന്നെ നമ്മുടെ കോഴി മസാല അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇവയൊക്കെ കുരുമുളകുപൊടി കുരുമുളക് നമുക്ക് ധാരാളമുണ്ട് അതുകൊണ്ട് നമ്മൾ കുരുമുളക്പൊടി ഇല്ലാത്തൊരു ഇറച്ചി വിഭവം കാണത്തില്ല കുരുമുളകും പൊടി നല്ലതായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല ഇങ്ങനെയുള്ള മസാലകൾ നമ്മുടെ കറികളുടെ രുചി കൂട്ടുന്ന വസ്തുക്കളാണ് ഗരം മസാല ഗരംമസാലാന്ന് പറയുമ്പം തന്നെ നമ്മുടെ ഏലക്കായും ഗ്രാമ്പൂമ് കറുവാപ്പട്ടയും ജീരകോം പെരുംജീരകവും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ വറത്ത് ഉണക്കി പൊടിച്ച് തയ്യാറാക്കുന്ന ഒരുതരം ഒരു ഗരംമസാലയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഗരം മസാല കൂട്ടെന്ന് നമ്മൾ പറയുന്നത് അത് ഇറച്ചി വിഭവങ്ങളിലാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് അത് നമ്മുടെ ഇറച്ചീടെ സ്വാദിനെ ഒക്കെ അതായത് നല്ല രീതിയിൽ കൂട്ടുന്ന ഒരു മസാലയാണ് ഈ ഗരം മസാല